ആ പറയൂ സാർ ആ അതെ അതെ എന്താണ് വിളിച്ചത് ആ ഓക്കെ ഓക്കെ ട്രാവൽസ് ഇവിടുന്ന് നിങ്ങൾ സെലക്റ്റ് ചെയ്യുന്ന പ്ലേസ് അനുസരിച്ചാണ് എമൗണ്ടും കാര്യങ്ങളൊക്കെ പറയുന്നത് ട്രാവൽ ആണോ എങ്ങനെയാണ് ഫാമിലി എത്ര പേരുണ്ട് സെവൻ അപ്പോൾ ഒരു ട്രാവൽ ബുക്ക് ചെയ്യണോ ഒരു കാർ ബുക്ക് ചെയ്യണോ ഒരു ട്രാവൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ സാർ അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ പ്ലേസിലോട്ടാണ് നിങ്ങൾ പോവാൻ ആഗ്രഹിക്കുന്നത് ആ പ്ലേസ് ഒന്ന് പറയുമോ ഓക്കെ ഓക്കെ സാർ അപ്പം കോവളം ബീച്ച് ഒരു ഡെസ്റ്റിനേഷൻ ബുക്ക് ചെയ്യാം ആ മൗണ്ടൻസ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാം പൊന്മുടി പൊന്മുടി ബുക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ പൊന്മുടി അങ്ങനെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വല്ല പ്ലേസും ഉണ്ടോ ഫേവറേറ്റ് ആയിട്ട് പോവാൻ പറ്റിയ പ്ലേസ് വല്ലതും ആ പൊന്മുടി വയനാട് ഓക്കെ വയനാട് ഇതുപോലെ വേറെ പ്ലേസ് വല്ലതും ഉണ്ടോ ആ ഫോറസ്റ്റ് ഇവിടെ ഒരു ഫോറസ്റ്റ് മ്യൂസിയം ഉണ്ട് അവിടെ പോവുന്നോ ഫോറസ്റ്റ് മ്യൂസിയം

ആ ഓക്കെ അവിടെ അവിടുത്തേക്ക് ഇപ്പം വേറെ ഒരു കാര്യം ആ ഓക്കെ ഓക്കെ പിന്നെ സാർ ഇപ്പം നമ്മൾ നിങ്ങളുടെ കൂടെ ഒരു ഗൈഡിനെ അയയ്ക്കണോ അതോ ട്രാവലിങ്ങ് ആൾ മാത്രം മതിയോ ട്രാവൽ ഡ്രൈവർ മാത്രം മതിയോ ഗൈഡ് വേണമല്ലേ അപ്പം ഇത് രണ്ടും കൂടെ ഓക്കെ ഓക്കെ അത് ബു ബുക്ക് ചെയ്യാം അത് നമ്മൾ സെറ്റ് ചെയ്തുതരാം നിങ്ങൾ വേറെ ഒന്നും പറയേണ്ട നമ്മൾ ഒരു പാക്കേജ് ആണ് പറയുന്നത് ആ പാക്കേജിൻ്റെ എമൗണ്ട് നമ്മൾ കൃത്യമായിട്ട് പറയും അത് അടച്ചാൽ മതി ബാക്കിയുള്ള നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് ബുക്ക് ചെയ്യാം ഫുഡ് നോൺ വെജ് ആണല്ലേ ഓക്കെ പിന്നെ വേറെ എന്തെങ്കിലും വേണോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മീറ്റ് ഒന്നും വേണ്ടല്ലോ മീറ്റ് മീറ്റ് ഒന്നും വേണ്ടല്ലോ ഓക്കെ അതിനകത്ത് നമ്മൾ സീ ഫുഡ്സ് ഓക്കെ ആ ഓക്കെ ഓക്കെ ഇത് ഫാമിലി കുട്ടികൾ എത്ര പേർ അപ്പം അതൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു സാർ ഫാമിലി ഓക്കേ ഇതിപ്പം എത്ര റൂം വേണം മൂന്ന് റൂം ഓക്കെ മൂന്ന് റൂം ഇപ്പം ഏഴ് പേർക്കും കൂടെ ഒരു മൂന്ന് റൂം മതിയല്ലോ ഓക്കെ ഓക്കെ അപ്പം അത് നിങ്ങൾ എല്ലാവരേയും ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വിളിച്ചാൽ മതി സാർ നമ്മൾ അത് സെറ്റ് ആക്കാം പിന്നെ പിന്നെ വേറെ ഫേവറേറ്റ് സ്പോട്സ് ഇത് വല്ലതും ഉണ്ടെങ്കിൽ സ്പോട്സ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് വിളിച്ചറിയിക്കണം വിളിച്ചറിയിച്ചാൽ അതൊന്ന് ചേഞ്ച് ചെയ്ത് ഓ വൺ വാട്ട്സാപ്പ് ചെയ്യാം നമ്മൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തിലും

ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അതൊക്കെ ഷെയർ ചെയ്യാം ഇപ്പം നിങ്ങൾ ആ സമയത്ത് വിളിച്ചാൽ മതി നമ്മൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ഷെയർ ചെയ്ത് സെറ്റ് ആക്കി തരാം അപ്പം താങ്ക് യു സാർ വിൻറേജ് ടൂറിസത്തിലേക്ക് വിളിച്ചേക്ക് നന്ദി ഓക്കെ